എനിക്കറിയാവുന്ന ചില്ലറ അല്ലെങ്കിൽ മൊത്ത വ്യാപാര വിപണികൾ എന്തൊക്കെയാണെന് ചോദിച്ചാൽ എനിക്ക് ഏലയ്ക്ക അങ്ങനെ എക്സ്പോർട്ടും ഇമ്പോർട്ടും പിന്നെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും വിൽക്കുന്ന കൂട്ടുകാരുണ്ട് അവർ ഇടുക്കിയെന്നുള്ളവരാണ് അവർക്ക് അതിൻ്റെ കൃഷിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ അവർ വിൽക്കുന്നവരുണ്ട് അങ്ങനെ അവരെയൊക്കെ എനിക്കറിയാം പിന്നെ എൻ്റെ വലിയച്ഛനൊരു സ്റ്റേഷനറി ഷോപ്പുണ്ടായിരുന്നു അത് അവിടെ റീറ്റെയിലും ഹോൾ സെയിലും ഉണ്ടായിരുന്നു മൊത്ത വ്യാപാരവും ചില്ലറ വ്യാപാരവും ഉണ്ടായിരുന്നു അപ്പം അതും എനിക്കറിയാം അപ്പം അവിടെ അരിയും

അടുത്തക്കാലത്തായി പച്ചക്കറി പലചരക്കുള്ള ഏരിയയിൽ വന്നിട്ടുള്ള വിലയിൽ വന്നിട്ടുള്ള വിലക്കയറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇൻഫ്ലേഷനൊക്കെ ബാധിച്ച് വില കയറാം പക്ഷെ അതിൻ്റെ എങ്ങനെ എത്ര എത്രത്തോളം കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ട് എന്ന് എനിക്ക് വലിയ അതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ഷോപ്പിംഗിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്നു പറഞ്ഞാൽ ജാസ്തിയായിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംങ്ങ് നമ്മൾ ചെയ്യ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് അപ്പം എനിക്കതിൽ എന്നും വളരെ നല്ല അഭിപ്രായങ്ങൾ അതിനെ പറ്റിയുള്ള കാരണം അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഒരു സാധനം വാങ്ങേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് കടയിൽ പോകാതെ വാങ്ങിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ അല്ലേ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അത് വളരെ നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതിനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രമേയുള്ളു പെട്ടെന്നൊരു കടയിൽ പോയി സാധനം വാങ്ങാൻ നമുക്ക് നമ്മളെക്കൊണ്ട് എപ്പോഴും പറ്റിയെന്നു വരില്ല അപ്പം അത് ഓൺലൈനായിട്ട് ഓഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാൽ മതി സാധനം വീട്ടിയെത്തും ഉം ഹോം ഡെലിവറി ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല അത് വളരെ നല്ലൊരു കാര്യമാണ്